ഹലോ മൊബൈൽ റീചാർജ് ചെയ്യുന്ന സ്ഥലമല്ലേ ഹലോ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ പ്ലാനിനെ പറ്റി ഒന്ന് പറയാമോ ഓക്കെ ഓക്കെ അത് അപ്പം എത്ര ദിവസത്തേക്ക് കിട്ടുന്നത് ഓ ഓക്കെ പതിനഞ്ച് ഇരുപത് ദിവസത്തേക്ക് ആണല്ലേ അപ്പം എത്ര ജീ ബി ഡേറ്റ വീതമാണ് എത്രയാണ് ടു ജിബിയോ ഓ അപ്പം ഈ പ്ലാൻ അല്ലാതെ ഇരുപത്തി എട്ട് ദിവസത്തേക്ക് ഏതാണ് പ്ലാൻ ഉള്ളത് ഒ മുന്നൂറ്റി അമ്പതോ ഓ ഓക്കെ ഓക്കെ ഫൈവ് ജിയും കൂടെ കിട്ടുമല്ലേ ഓക്കെ ഓക്കെ ഓക്കെ ആ താങ്ക് യു താങ്ക് യു താങ്ക് യു കേട്ടോ